എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾക്ക് കുടുംബശ്രീ വഴി ഹരിത കർമ്മ സേന വഴി നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് അതിനു പുറമെ നമ്മുടെ ജൈവ മാലിന്യങ്ങൾ സംസ്ക്കരിക്കുന്നതിനു വേണ്ടി നമ്മളിവിടെയൊരു പിറ്റ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കു നമ്മുടെ ജൈവ മാലിന്യങ്ങൾ ഇടുകയും അതവിടെ സംസ്ക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ മറ്റു പ്ലാസ്റ്റിക്ക് മറ്റു ഹസാർഡ്സ് ആയ വേസ്റ്റുകൾ എല്ലാം നമ്മൾ മുൻസിപ്പാലിറ്റിയ്ക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ എൻ്റെ പ്രദേശത്തിൻ്റെ വേസ്റ്റ് വളരെ ഫലപ്രദമായ രീതിയിൽ മാനേജ് ചെയ്യപ്പെടുകയാണ്